ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളില് നല്ല എന്താണ് മൂത്രപ്പുരയ്ക്കു നല്ല ക്ഷാമമാണ് ഇനി എന്താണ് മൂത്രപ്പുരകളുണ്ടെങ്കിലും വിദ്യാർത്ഥികളന്നെയാണെങ്കിലും പലേടത്തുനിന്നുള്ള വിദ്യാർത്ഥികളല്ലേ അവരുടെ ഇത് കഴിവുകേടുകൊണ്ടുതന്നെ വൃത്തിഹീനമായ മൂത്രപ്പുരയാണു പല സ്കൂളുകളിലുള്ളത് ഈ വൃത്തിഹീനമായ മൂത്രപ്പുരം ഉള്ളതുകൊണ്ടുതന്നെ പല കുട്ടികളും ബാത്റൂമില് പോവാൻ മടിക്കുന്നവരൊക്കെ ഇണ്ട് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിലാണിത് കണ്ടുവരുന്നത് പലേടത്തുനിന്നു വന്ന കുട്ടികളായതു കൊണ്ട് പല ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ടു ചിലപ്പോള് ഇത് എങ്ങനെ ആരാണു ചെയ്തത് വൃത്തികേടാക്കിയത് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് അതിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടു പ്രത്യേകം ആളാക്കാനൊക്കെ സർക്കാരുകൾ പ്രത്യേകം എന്താണ് വഴി ഉണ്ടാക്കുന്നതു നല്ലതാണ് അത് ആ വൃത്തിഹീനമായതുകൊണ്ടു തന്നെ പല കുട്ടികളും ബാത്റൂമില് പോവാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരൊക്കെ ഉണ്ട് ചെയ്യാത്തവർക്കും കൂടി അതു കുറ്റമാണ് അതുപോലെ തന്നെ എന്താണ് കുടിവെള്ളത്തിനൊക്കെ ക്ഷാമമില്ല കുടിവെള്ളം പുസ്തകങ്ങളൊക്കെ എന്താണ് സർക്കാര് എന്താണ് ഒക്കെ സൗജന്യമായിട്ടു ലഭിക്കുന്നുണ്ട് പിന്നെ ചില സ്കൂളുകളില് ചില ക്ലാസ്സുകളുടെ മേശയും കസേരയുമൊക്കെ എന്താണ് എന്തോ കേടായിട്ടുള്ളതൊക്കെ ഉണ്ട് പൊട്ടിയതും എന്താണ് കാലൊടിഞ്ഞതുമൊക്കെ ആയിട്ടുള്ള കസേരകളും മേശകളും ബെഞ്ചൊക്കെയാണുള്ളത് എന്താണ് അതുപോലെ തന്നെ ഭക്ഷണ രീതി പറഞ്ഞാല് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനു പറ്റുന്ന ഭക്ഷണ രീതികള് തന്നെയാണ് പ്രത്യേകിച്ച് എല്ലാ സർക്കാർ സ്കൂളുകളിലൊക്കെ ലഭിക്കുന്നത് പക്ഷെ മറ്റ് പ്രൈവറ്റ് സ്കൂളുകൾക്കാണെങ്കില് നമ്മള് വീട്ടില്നിന്നു ഭക്ഷണമുണ്ടാക്കി കൊണ്ടുപോവുകയൊക്കെ വേണം പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളില് അവര്ക്കു ഭക്ഷണം മുട്ട പാല് അതേപോലെത്തന്നെ പല പയറുവർഗ്ഗങ്ങള് പലതും അവര്ക്കു സൗജന്യമായിട്ടുതന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ഗ്രാമത്തെ നല്ല മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ളത് മൂത്രപ്പരയും പിന്നെ ഈ ബെഞ്ച് കസേര മേശയൊക്കെയാണ് പുസ്തകങ്ങളും മറ്റെല്ലാതും സൗജന്യമായിട്ടു ലഭിക്കുന്നുണ്ട് പിന്നെ പിന്നെ മൂത്രപ്പര വൃത്തികേടാക്കുന്നത് കുട്ടികളാണെങ്കിലും പക്ഷ ഇതൊക്കെ ഒന്നു നോക്കാനും മെയിന്റെയിൻ ചെയ്യാനും അതു വൃത്തികേടാക്കിയതു വൃത്തിയാക്കാനുമൊക്കെ ഒരാള് ഉണ്ടാവുക എന്നൊക്കെയുള്ളതു നല്ലതാണ്